തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന സാമൂഹിക ക്ഷേമ വികസന പരിപാടികൾ എന്ന് പറയുമ്പം അതിൽ വിദ്യാഭ്യാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ധാരാളം പിന്നെ മെച്ചപ്പെടലുകളുണ്ടായിട്ടുണ്ട് അതിൽ തന്നെ അതിൽ ഒന്നാണ് സ്കോളർഷിപ്പ് പാവപ്പെട്ട ഒ ബി സി എസ് സി എസ് ടി ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പം ഉച്ചഭക്ഷണമുണ്ട് കുട്ടികൾക്ക് വണ്ട് വണ്ടിയുണ്ട് സ്കൂൾ വണ്ടിയുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഇപ്പം എൽ എസ് എസ് യു എസ് എസ് എന്ന് പറയും പോലെ സ്കോളർഷിപ്പ് പരീക്ഷകൾ നടത്തുന്നുണ്ട് അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടീട്ട് ഉയർന്ന നിലവാരമാണിപ്പം ഗവൺമെൻറ് സ്കൂളിലും കാഴ്ച്ച വെക്കുന്നത് അതുപോലെ തന്നെ വലിയ വലിയ കെട്ടിടങ്ങളും അവർക്ക് നല്ല സൗകര്യങ്ങളും ഫേ ഫാന് കറണ്ട് അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ധാരളമായിട്ട് സ്കൂളുകളിൽ പുരോഗമിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനെക്കുറിച്ച് പറയുകയാനെങ്കിൽ പാവപ്പെട്ടവർക്ക് ധാരാളം സഹായങ്ങൾ ആരോഗ്യ സംരക്ഷണം വഴി ഈ ഹെൽത്ത് സെൻ്ററുകൾ വഴി ലഭിക്കുന്നുണ്ട് പാ പാവപ്പെട്ടവർക്ക് വീടുകളിൽ അവർക്ക് വീടുകളിൽ പോയി ചികിത്സകൾ വാർദ്ധക്യ സഹചമായ അസുഖങ്ങളുള്ളവർക്ക് ഹെൽത്ത് സെൻ്ററ് വഴി ഏത വീടുകളിൽ പോയി പരിശോധിക്കുകയും അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ആയിരുന്നാലും കുട്ടി കുഞ്ഞുങ്ങൾക്കായിരുന്നാലും ഒക്കെ ധാരാളം സഹായങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നുണ്ട് ഈ ഹെൽത്ത് സെൻ്ററും അംഗൻവാടി വഴിയും ധാരാളം സഹായങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കുടുംബശ്രീ തന്നെയാണ് കുടുംബശ്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് ഇങ്ങനെ അവർ ഘട്ടം ഘട്ടമായിട്ടുണ്ട് അവർ ഈ തലപ്പത്തിരിക്കുന്ന സി ഡി എസ് അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ വിവരങ്ങൾ എ ഡി എസിനെ അറിയിക്കുകയും എ ഡി എസ് എ ഡി എസാണ് ഈ കുടുംബശ്രീ അംഗങ്ങളെ അറിയിച്ച് ഓരോ വിപണിയിൽ ധാരാളം വ്യവസായങ്ങൾ വ്യവസായങ്ങളൊക്കെ സംരഭങ്ങൾ ഈ സ്ത്രീ ശാക്തീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എന്താണ് സ്ത്രീകൾക്ക് ശക്തി ലഭിക്കുക എന്നുള്ളതാണ് അവർ സ്വയം പ്രാപ്തരാകണം അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ശാക്തീകരണം ഈ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പണി തന്നെ നമ്മൾ സ്ത്രീകൾക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ വെച്ചാണ് കിട്ടുന്നത് ഉം അപ്പോൾ ആരെയും താങ്ങാതെ സ്ത്രീകൾക്ക് മുന്നോടിയായി നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു സ സംഘടന തന്നെയാണ് സ്ത്രീ ശാക്തീരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്